വിദ്യാഭ്യാസ ലോൺ എടുത്തൊരാളാണ് ഞാൻ ഞാൻ പഠിക്കാൻ വേണ്ടി ഒരു വിദ്യാഭ്യാസ ലോൺ എടുത്തിരുന്നു ഞാൻ വിദ്യാഭ്യാസ ലോൺ എടുത്തതിനു ശേഷം മൂന്ന് വർഷത്തെ കോഴ്സ് ചെയ്തു ഒരു കോഴ്സ് ചെയ്തു കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഒരഞ്ചാറു വർഷമാകുന്നു കോഴ്സ് ചെയ്ത് കഴിയുംവരെ വിദ്യഭ്യാസ ലോൺ ഗഡുക്കളായി എനിക്ക് പൈസ ലഭിച്ചിരുന്നു അതിൽ നിന്നും പതിനാലര ശതമാനം ആണെനിക്ക് പലിശയ്ക്കായി പൈസ തന്നത് ആ പൈസ ഉപയോഗിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് പൈസ പഠിച്ചിറങ്ങി എനിക്കത്രയും പൈസ തിരിച്ചടയ്ക്കാനായി ഒരു ജോലി ഇല്ല ഇപ്പോൾ ജോലിയുണ്ടായിരുന്നുവെങ്കിലും അത് തുച്ഛമായ വരുമാനം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളു ആ വരുമാനംകൊണ്ട് എനിക്ക് ആ ലോൺ അടച്ചു പോവുക എന്നത് വളരെ ദുഷ്ക്കരമായ കാര്യമായിരുന്നു ഇപ്പോഴാ പലിശ അവിടെ കൂടിക്കൂടി കൂട്ടുപലിശയായി കടംകയറി ലക്ഷങ്ങൾ ആയി മാറിയിട്ടുണ്ട്